വിനോദസഞ്ചാരികളുമായിട്ട് ഇടപെടുന്നത് എനിക്ക് ഇ ഷ്ടമാണ് അങ്ങനെ ഇടപെടുന്നത് വഴി നമുക്ക് അവരെ പറ്റി കൂടുതലറിയാനും അവരുടെ നാടിനെ പറ്റി അറിയാനും അവർ എന്ത് ആഗ്രഹിക്കുന്നു എന്നതിനെ പറ്റി അറിയാനും സാധിക്കുന്നു നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് പറയാനും മനസ്സിലാവും അത് അതുപോലെ തന്നെ അവരുടെ രാജ്യത്ത് എന്തെല്ലാം വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആൾക്കാർ എത്ര വരുന്നുണ്ട് അതു പോലെ നമുക്കും നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാറ്റാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് അറിയാനും നമ്മുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ അതുപോലെ തന്നെ അവരുടെ ജീവിത ക്രമങ്ങളെ പറ്റി അവരുടെ നാട്ടിലെ മനുഷ്യർ അങ്ങനെ ജീവിക്കുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അവർ എങ്ങനെയാണ് പോകുന്നത് അവർ കഴിക്കുന്ന ആഹാരങ്ങൾ എന്ത് അവരുടെ അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെ അങ്ങനെ അവിടെ അവരുടെ രാജ്യത്ത് ഒത്തിരി ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണും അവിടെ അതിനെ പറ്റി അറിയുമ്പം നമുക്ക് ഭാവിയിൽ അവരുടെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും അവിടെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു അതുപോലെ ഞങ്ങളുടെ രാജ്യങ്ങൾ നാട്ടിലും ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ഇവിടെ അടുത്ത് ആണെങ്കിൽ തന്നെ ഒരു ഗുഹാ ടെമ്പിളുണ്ട് അത് ഒത്തിരി ഒത്തിരി കാലപ്പഴക്കം ഉണ്ട് അത് പാറയുടെ ഉള്ളിലാണ് ആ ഒരു ഒരു ടെംബിൾ ആണ് അതിൽ ഇപ്പോൾ ഒത്തിരി ഒത്തിരി മനുഷ്യർ വളരെ ഏറെ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് അത് അവസാനം അത് നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് തീരാനുള്ള ഒരു ഒരു സാഹചര്യമുണ്ട് അതു പോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് കടയ്ക്കൽ എന്ന് പറയുന്ന സഞ്ചാര ജഡായുപ്പാറ അവിടെ അതിപ്പം വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടൊക്കെ മാറിയിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പല പല ദേശങ്ങളിൽ നിന്ന് വരുന്നു അങ്ങനെ നമ്മുടെ സംസ്കാരം അവർക്ക് മനസ്സിലാകാനും നമുക്ക് അവരുടെ സംസാരങ്ങൾ മനസ്സിലാക്കാനും പ്രയോജനപ്പെടുന്നു അങ്ങനെ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പല പല രാജ്യങ്ങളിൽ നിന്നും പല പല നാട്ടിലെ ആൾക്കാരിൽ നിന്ന് പല പല ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസിലാകാം അത് നമ്മുടെ രാജ്യത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രാവർത്തികമാക്കാനും സാധിക്കുന്നു അങ്ങനെ അവരുടെതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ എങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടുതൽ വ്യാപിപ്പിക്കാം വികസിപ്പിച്ചെടുക്കുക എന്ന് മനസിലാക്കുക അത് അനുസരിച്ച് നമ്മൾ വികസിപ്പിക്കുമ്പോൾ അവിടെ മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി പേര് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഒത്തിരി അരുവികളുണ്ട് അരുവികൾ ഒത്തിരി ഒത്തിരി നല്ല നല്ല ജലാശയങ്ങളാണ് അവിടെ മറ്റുള്ള യാതൊരു അഴുക്കോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രകൃതിയുടെ തന്നെ പ്രകൃതിയുടെ തന്നെ ദാ ഇതൊരു ദാനമായി അത് നമ്മൾക്ക് അത് കൂടുതൽ വികസിപ്പിച്ചെടുക്കാം അവരിൽ നിന്നും മനസിലാക്കാം ഇത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അത് നമുക്ക് അവിടെ ചെയ്യാം അതു പോലെ അവരുടെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് പറഞ്ഞു തരും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും അവരുടെ ജീവിത രീതി അവരുടെ ആഹാര രീതി അവരുടെ വിശ്വാസം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ നമുക്കും നമ്മുടേതായ രീതിയിൽ ഇത് വികസിപ്പിച്ചെടുക്കാം പല പല കാര്യങ്ങളും പല പല ഫണ്ടുകൾ സർക്കാരിൽ നിന്ന് കിട്ടി അത് വികസിപ്പിച്ചെടുക്കാം ഈ ഗൂഹാ ടെബിളെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പോയ വഴിക്ക് ഇങ്ങനെ ഓരോ ഓരോ ഓരോ രാജാക്കന്മാരും പോയ വഴിക്ക് ഇങ്ങനെ പാറ വീണ് ആ പാറയിൽ നിന്ന് തുരന്ന് ഗുഹാ ടെമ്പിൾ ഉണ്ടാക്കിയതാണ് അത് ഇപ്പം ഇന്ന് പറഞ്ഞ ഒരു കേവ് ടെമ്പിളെന്ന് പറഞ്ഞു ഇതിപ്പം ഈ നമ്മുടെ കൊല്ലത്ത് നിന്നാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാലും ഒത്തിരി ഒത്തിരി വിനോദസഞ്ചാരികളെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു അങ്ങനെ നമുക്ക് ഒത്തിരി വികസിപ്പിച്ചെടുക്കാനും നമുക്ക് ഈ വിനോദസഞ്ചാരികൾ വരുന്നതോടു കൂടി നമ്മുടെ കച്ചവടമാണെങ്കിലും നമ്മുടെ ആദായമാണെങ്കിലും അങ്ങനെ ഒത്തിരി ഒത്തിരി മാറുന്നു അങ്ങനെ ഒത്തിരി നമ്മൾ ഉയരുന്നു നമുക്ക് നമ്മളെ പറ്റി അവർക്കും മനസിലാവുന്നു അവരെ പറ്റി നമുക്കും മനസ്സിലാവുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിനോദസഞ്ചാരികളുമായിട്ട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട് അവരുവായിട്ട് സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചിലവഴിക്കാനും അങ്ങനെ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് നമ്മുടെ സാംസ്കാരം നമ്മുടെ സംസ്കാരം എന്താണ് അവരുടെ സംസ്കാരം എല്ലാം വ്യത്യാസമായിരിക്കുമല്ലോ അങ്ങനെ അവരുടെ സംസ്കാരം നമ്മുടെ അവരുടെ സംസ്കാരത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് ഉൾക്കൊള്ളാനും നമ്മളിൽ നിന്ന് നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇത് പ്രചരിപ്പിക്കാനും സാധിക്കുന്നുണ്ട് കൂടാതെ കൂടാതെ നമുക്ക് അവരുടെ കൂടെ പോകാനും അവരുടെ സ്ഥലങ്ങൾ കാണാൻ എന്തായാലും നമുക്ക് മനസ്സിലാകുമല്ലോ ഇന്ന സ്ഥലത്താണ് ഇന്ന ഇന്ന കാര്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കാണും അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്ന ആൾ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒത്തിരി അനുഭവങ്ങളാകുന്നു നമ്മടെ ബുദ്ധിയെ വികസിപ്പിക്കുന്നു പിന്നെ ആധ്യാത്മികമായിട്ട് ഉണർവുണ്ടാകുന്നു ഭൗതിക തലത്തിലും സാംസ്കാരിക തലത്തിലും പിന്നെ സാമ്പത്തിക തലത്തിലും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്